ഹലോ കാനറ ബാങ്ക് അല്ലേ ആ എനിക്ക് എനിക്ക് പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു സേവിംഗ് അക്കൗണ്ട് മതി

ഞങ്ങളെ സ്ഥലം മാനന്തവാടി ഇവിടെ അടുത്ത് തന്നെയാണ് ചെറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ അപ്പം അതിന് എന്തൊക്കെയാണ് എന്ത് ആ പാൻ കാർഡ് പിന്നെ

ആയിരം രൂപയാണോ ആ ഓക്കെ ഏത് സമയത്ത് വന്നാലും കിട്ടുവോ കിട്ടുവോ

ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഒരു ലോൺ എടുക്കണമെങ്കിൽ അക്കൗണ്ട് നിർബന്ധം ആണല്ലേ

അക്കൗണ്ടിൽ നിന്നാണോ ആ ഓക്കെ ഓക്കെ അപ്പം ആധാർ കാർഡും ഇല്ല ഞാൻ അഞ്ഞൂറ് രൂപ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇത് ഇനി നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോ എ ടി എമ്മിൽ ഇട്ടുകഴിഞ്ഞാൽ ഇത്രയും ചാർജ് പിടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എ ടി എമ്മിൻ്റ ചാർജ് ആണോ അതിൽ നമ്മളെ എസ് എം എസ് വരുന്നതിന്റെ ചാർജ് അല്ലേ മൂന്ന് മാസം കൂടുമ്പോൾ അല്ലേ അത് എത്ര രൂപ വെച്ചാണ് അത് എത്ര രൂപ വെച്ചാണ് പിടിക്കുക പതിനഞ്ച് രൂപയാണോ ഓക്കെ ഓക്കെ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ ഞാൻ വന്നിട്ട് അക്കൗണ്ട് എടുക്കാം എന്നാൽ ആ ഈ പ്രൂഫ് ഒക്കെ കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാൽ മതി അല്ലേ ആ ഓക്കെ എന്നാൽ